വായനാടിലാണ് ഞാൻ താമസിക്കുന്നത് വയനാട്ടിലെ മെയിനായിട്ടുള്ള തൊഴിലെന്താണെന്നു വെച്ചിട്ടുണ്ടെങ്കിൽ കൃഷിതന്നെ ഇവിടെ കാപ്പികൃഷിചെയ്യുന്നവരുണ്ട് അതുപോലെതന്നെ കുരുമുളക്ണ്ട് വാഴയുണ്ട് നെല്ലുണ്ട് ഏറ്റവും കൂടുതൽ നമ്മൾ കാണപ്പെടുന്നത് നെൽകൃഷിയും വാഴകൃഷിയുമാണ് അതുപോലെതന്നെ കവുങ്ങുമുണ്ട് തെങ്ങ് അതൊക്കെയുണ്ട് ഏറ്റവും കൂടുതൽ കാണുന്നത് ഇവിടെ വയലോരങ്ങളാണ് അതായത് നെൽകൃഷിയും വാഴയാണ് പുറത്തുനിന്ന് ആളുകൾ ഇതിനെകാണുന്നത് വളരെ അമ്പരപ്പോടെയാണോയെന്ന് നമുക്ക് പറയാൻ കഴിയുകയില്ല കാരണം മറ്റ് പല സംസ്ഥാനങ്ങളും നെൽകൃഷിയും വാഴകൃഷികളും എല്ലാംതന്നെയുണ്ട് എന്നാലും ആ ഒരു മനോഹര മനോഹരം രസിക്കാൻവേണ്ടി പലരും പുറത്തുന്ന് ടൂറിസ്റ്റുകൾ എത്താറുണ്ട് ഇവിടെത്തെ അറുപത് എഴുപതിലും ഒക്കെ ജനിച്ചവർ ഇപ്പോഴും കൃഷി ചെയ്താണ് ജീവിക്കുന്നത് അത്പിന്നെ അവർക്ക് ലാഭങ്ങളൊക്കെ ലഭിക്കുന്നുണ്ടെങ്കിലും പണ്ടത്തെപോലെ അത്രയും ലാഭം ഇപ്പം ലഭിക്കുന്നില്ല മൺപാത്രം എന്നൊക്കെയുണ്ടായിരുന്നു പക്ഷെ ഇപ്പോൾ പരലും പലരും മൺപാത്രത്തെയൊന്നും ചൂസ് ചെയ്യാ ത്തത്കൊണ്ട്തന്നെ അതിൻ്റെ ഉപയോഗം വളരെ കുറവാണ് കൂടുതലും കൃഷിയെന്നു പറയുന്നത്തിൽ നെൽകൃഷി കപ്പകൃഷി വാഴ കവുങ്ങ് ഇഞ്ചി അതൊക്കെത്തന്നെയാണ് നമുക്ക് കാണാൻ സാധിക്കുക